എൻ്റെ ഫോണ് ലാപ്ടോപ്പ് ഇതെല്ലാം കേട് വരാറുണ്ട് അപ്പോൾ ഈ കേടു വരുന്ന സമയങ്ങളില് ഞാനെൻറ്റെയൊരു കൂട്ടുകാരനെയാണ് വിളിക്കാറുള്ളത് അവനൊരു സർവീസ് സെൻറ്ററുണ്ട് അപ്പോൾ ഇവനെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശ്വാസത്തോടെ കൊടുക്കാൻ പറ്റിയ ഒരാളാണ് കാരണം ഡാറ്റയൊന്നും ചോർന്നു പോകാതെ തന്നെ എല്ലാം നല്ല കൃത്യമായിട്ട് തന്നെയാണ് ചെയ്തു തരുന്നത് എൻ്റെ എപ്പോൾ ഫോണും ലാപ്ടോപ്പും കേടു വന്നാലും ഞാൻ കൊടുക്കുന്നത് ഇവന്റെ അടുത്ത് തന്നെയാണ് പിന്നെ അതുകൂടാതെ തന്നെ വീടിൻറ്റ അടുത്തും ഇതുപോലെ നല്ല സേവനങ്ങളുള്ള കേന്ദ്രങ്ങളുണ്ട് അവരുടേയും സേവനങ്ങളെല്ലാം വളരെ നല്ലതാണ് നല്ല കൃത്യമാണ് നല്ല വിശ്വാസത്തോടെ കൊടുക്കാൻ പറ്റിയ ഒരു